ഗ്രാമീണജനത നഗരങ്ങളിലേക്കു കുടിയേറി പാർക്കുന്നതിനു പലകാരണങ്ങളാണ് ഒന്ന് ഈ ഗ്രാമ പ്രദേശങ്ങളിൽ നല്ലൊരു ശതമാനം വൈദ്യുതി അതു തന്നെ പറയാം വൈദ്യുതി വെള്ളം ഇതൊക്കെ ഗ്രാമ പ്രദേശങ്ങളിൽ കിട്ടിയാൽ കിട്ടി ഇല്ലെങ്കിൽ ഇല്ല പക്ഷെ നഗരങ്ങളിൽ ആണെങ്കിലൊ ഇരുപത്തി നാല് മണിക്കൂർ ഇതെല്ലാം കിട്ടും അപ്പം അവർക്കു പിന്നെ വാഹന സൗകര്യം അതവർക്കൊരു ഇമ്പോർട്ടൻറ്റായിട്ടുള്ള കാര്യമാണ് വിദ്യാഭ്യാസം സൗകര്യം ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് ഗ്രാമീണ ജനങ്ങൾ നഗരങ്ങളിലേക്കു കുടിയേറിക്കൊണ്ടേയിരിക്കുന്നത് പിന്നെ മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്നും നഗരങ്ങളിൽ മാത്രം കിട്ടുന്ന ഇതു ഞാനീ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇതു ഗ്രാമീണ പ്രദേശങ്ങളിൽ കിട്ടാൻ കിട്ടുന്നത് വളരെ ബുദ്ധിമുട്ടാണ് പിന്നെ മറ്റുള്ള സംസ്ഥാനങ്ങൾ അപേക്ഷിച്ച് നോക്കുന്നെങ്കിൽ നമ്മൾ നമ്മുടെ സംസ്ഥാനത്തിൽ പലതും കുറവെന്നു തന്നെയാണ് പറയേണ്ടത്